എൻ്റെ വീട്ടിലെ എല്ലാവരും നല്ല സ്വാദുള്ള ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് അതു കൊണ്ടു തന്നെ അവർക്ക് നല്ല രീതിയിൽ നല്ല സ്വാദോടു കൂടിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് അവർ ഏത് ഏത് സമയത്താണെങ്കിലും അവർ ആവശ്യപ്പെടുന്നത് അത് ചിക്കൻ കറി ആണെങ്കിലും മീൻക്കറി ആണെങ്കിലും ഒക്കെത്തന്നെ ചിക്കൻ കറി ആണെങ്കിൽ അവസാനം അതിൽ ഉള്ളിയും തക്കാളിയും ഒക്കെ വഴറ്റി ചിക്കൻ കറി ആയതിനു ശേഷം അതിൽ കുറച്ചു തേങ്ങാ പാൽ ചേർക്കാൻ ചേർക്കാറുണ്ട് അതേപോലെതന്നെ കുറച്ചു ഗരം മസാലകൾ പൊടിച്ചത് അതായത് പട്ട ഗ്രാമ്പു ഏലക്കായ ഇവയെല്ലാം കൂടി പാകത്തിന് അളവിലെടുത്തു പൊടിച്ച് എടുത്തു വെച്ചതിന് ഒരൽപ്പം ഒരു നുള്ള് അതിൽ ചേർക്കാറുണ്ട് അതുപോലെ നമ്മുടെ ഉരുവയുടെ ഇല ഉലുവയുടെ ഇല അവസാനം കൈയ്യിൽ വെച്ച് തിരുമി കുറച്ച് ചേർക്കാറുണ്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ചിക്കൻ കറിയുടെ കാര്യത്തിൽ അതുപോലെതന്നെ മീൻക്കറി മീൻക്കറി വെയ്ക്കുമ്പോൾ നമ്മളവസാനം കുറച്ചു ചീരകം ചെറിയ ചീരകം ഒന്നു ചെറുതായിട്ട് വറുത്തിട്ട് പൊടിച്ചിട്ട് ചേർക്കാറുണ്ട് അതു വളരെ അധികം നല്ലതാണ് കറിയുടെ സ്വാദ് കൂട്ടാൻ നന്നായിട്ട് ഇ ഉള്ളതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതു പോലൊരു അവസാനം കുറച്ച് പച്ച മുളക് കറി ആയതിനു ശേഷം അടുപ്പത്തു നിന്നു ഇറക്കിയതിനു ശേഷം നല്ല രണ്ടു മൂന്നു വെച്ച മുളക് എടുത്തു നീളത്തിൽ കീറി അ കറിയിലേക്ക് വെയ്ക്കും അതു പോലെതന്നെ കറിവേപ്പില എടുത്തു കൈയ്യിൽ വെച്ചു ഞെരടി അതും ചേർക്കാറുണ്ട് അതൊക്കെ കറിയ്ക്ക് സ്വാദ് കൂട്ടുന്ന കാര്യങ്ങളാണ് പക്ഷേ അങ്ങനെയാണെങ്കിലും മീൻക്കറി ഒക്കെ ആണെങ്കിലും തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റെ ദിവസം കഴിക്കുന്നതാണ് എൻ്റെ വീട്ടിൽ കൂടുതൽ എല്ലാവരും ഇഷ്ടപ്പെടുന്നത്